മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലാന്നും പറയാം പല പഠനങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ചില ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ അല്ല പക്ഷേ നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു ഇത് വേണം അതുപോലെ തന്നെ വെള്ളം ഭക്ഷണം അതുപോലെ അത് ഉല്പാദിപ്പിക്കാൻ പറ്റുന്ന മരങ്ങൾ അതുപോലെ തന്നെ എന്താ പറയാ പാനീയം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് വേണം അപ്പോൾ അങ്ങനത്തെ ഘടകങ്ങൾ പല ഗ്രഹങ്ങളിലും ചെറിയ രീതിയിൽ ചെറിയ തോതിൽ കാണാനുണ്ട് എന്ന് പറയാൻ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കണ്ടെത്തൽ ഇന്നേ വരെ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ കുട്ടികളോട് കഥ പറയുമ്പോൾ മറ്റ് ഗ്രഹത്തിൽ ഏലിയൻ ഉണ്ട് അതുപോലെ മറ്റ് ഗ്രഹത്തിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുക എന്നല്ലാണ്ട് അങ്ങനെ ജീവനുള്ള ഒരു ഏലിയൻ്റെ ഒരു ചിത്രമോ അതുപോലെ തന്നെ ഒരു ഒരു എന്തെങ്കിലും ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ എന്താ പറയാ അതിന് തെളിവ് നല്കുന്ന പോലെ ഒരു ഏലിയൻ്റെ ഒരു ജീവിതംശം കണ്ടിട്ട് ഉണ്ടെന്നോ അതിൽ തെളിഞ്ഞിട്ടുണ്ടെന്നോ ഒന്നും നമ്മൾ ഇന്നേവരെ കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയാ കുറെ രീതിയിൽ നോക്കുമ്പം മറ്റ് ഗ്രഹത്തിൽ നമ്മളെ ഇതിൽ അറിയുന്നുണ്ടാവില്ല അറിയാണ്ട് ജീവനുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതെ ഉള്ളു ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നമ്മളെ നമ്മളെ നമ്മൾ ജീ നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഗ്രഹത്തിൽ നമ്മളെ ഭൂമിയിൽ ജീവനുണ്ടെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലും ഉണ്ടായിക്കൂടായ്ക ഇല്ല നമ്മളുടെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഈ ഭൂമിയുടെ ആടുത്തോ ദൂരയോ ഉള്ള ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഉണ്ടാവാതിരിക്കാനും നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല പിന്നെ അത്രയും ദൂരെ ഉള്ള ഒരു ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതും വളരെ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്